ഹലോ ഞാൻ നിങ്ങളുടെ ചികിത്സാ കേന്ദ്രത്തെ പറ്റി കുറെ കേട്ടിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു ചികിത്സ വേണ്ടിയിട്ടായിരുന്നു എൻ്റെ പേര് ആതിര എനിക്ക് പ്രസവരക്ഷ ചികിത്സ ആണ് വേണ്ടത് എത്ര ദിവസമാണ് നിങ്ങളുടെ അടുക്കൽ ഉള്ളത് ഓ അങ്ങനയാല്ലേ അപ്പോൾ രണ്ട് മാസത്തെ അങ്ങനെ ഒന്നും ഇല്ല ഓ ആണല്ലേ എനിക്ക് എന്നാൽ മൂന്ന് മാസത്തെ ആണ് ആവശ്യം നിങ്ങൾ എന്തൊക്കെ ചികിത്സയാണ് അവിടെ കൊടുക്കുന്നത് ഓ ആണല്ലേ അപ്പോൾ എത്രയാണ് അവിടുത്തെ എത്ര ആൾക്ക് അവിടെ നിൽക്കാൻ പറ്റും ഓ നിങ്ങളുടെ പൈസയും കാര്യങ്ങൾ എല്ലാം ഒക്കെ എത്രയാണ് ഓ അങ്ങനെ ആണല്ലേ ആ എനിക്ക് മൂന്ന് മാസം ആണ് വേണ്ടത് നിങ്ങളുടെ ചികിത്സാ സ്ഥലം ശരിക്ക് കണ്ണൂര് എവിടെയാണ് വരിക ഓ ആണല്ലേ ആ അവിടെ അടുത്ത് മലബാർ ജ്വല്ലറിയിൽ വന്നിട്ടുണ്ടായിരുന്നു അവിടെ അല്ലേ ആ ആ ആ എത്ര മണിക്കാണ് നിങ്ങൾ അപ്പോൾ തുറക്കുക ഓ നാളെ വന്നാൽ അപ്പോൾ ഉണ്ടാകുമോ ഞായറാഴ്ച ആ ഉണ്ടാകും അല്ലേ ഓ ശരി എന്നാൽ ഞാൻ വീട്ടുകാരും ആയിട്ട് ആലോചിച്ചിട്ട് വിളിക്കാം കേട്ടോ ആ ഓക്കെ ഓക്കേ